ദീർഘ ദൂരം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും കുറേ നടുവേദന പിന്നെ നമുക്ക് എല്ലാ ഇടത്തേയും ഫുഡ് നമുക്ക് ഇഷ്ട്ടപ്പെട്ടെന്ന് വരില്ല പിന്നെ തലവേദന ശർദ്ദിക്കാൻ വരൽ അങ്ങനെയൊക്കെ കുറേ പേർക്ക് ഉണ്ടാവും എനിക്കും അതായത് ചെറിയതായിട്ട് നടു വേദന തലവേദനയൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് നിർത്താൻ പറ്റുന്നത് ഫുഡ് തന്നെ ഫുഡ് തന്നെ നമുക്ക് കുറേ കണ്ട്രോൾ ചെയ്തു ഇതാക്കാം എല്ലായിടറ്വറ്ച്ത്തു നിന്നും വാരി ഫുഡ് കഴിക്കാതെ നമുക്ക് ഒരു നോൺ വെജൊക്കെ അധികം ഒഴിവാക്കി വെജ് ഫുഡ് കഴിക്കുക പിന്നേ ശർദ്ദിക്കാതെ ഒക്കെ അതിനൊക്കെ കുറേ നല്ലതാണ് നോൺ വെജൊന്നും കഴിക്കാതെ ഇരിക്കുന്നത് തന്നെ പിന്നെ നടുവേദന വരാതെ ഇരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല ബൈക്കുകൾ ചൂസ് ചെയ്യുക ഈ നല്ല നല്ല അത്യാവശ്യം ഷോക്കപ്സാറും കാര്യങ്ങളൊക്കെയുള്ള ഇത് ഉപയോഗിക്കുക പിന്നേ എനിക്ക് ദീർഘ യാത്ര യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അധികം കഴിക്കാൻ നോൺ വെജ് ആണ് ഇഷ്ടം ബട്ട് ഞാൻ അധികം നോൺ വെജ് കഴിക്കാറില്ല റൊട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ഇതാക്കും അല്ലെങ്കിൽ കുറേ ദൂരെ പോയി സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ സ്റ്റേ ചെയ്തു പോകുന്നതാണെങ്കിൽ മാത്രമാണ് ഞാൻ അത്യാവശ്യം നല്ല ഫുഡുകൾ കഴിക്കാറുള്ളൂ കാരണം അല്ലെങ്കിൽ നമുക്ക് വയറിന് പിടിച്ചില്ല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നല്ല ഫുഡുകൾ കഴിക്കുമ്പോൾ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ഇത് കഴിക്കുള്ളൂ നോൺ വെജ് കൂടി കഴിക്കുകയുള്ളൂ